ഹലോ പോളോൻ്റെ കസ്റ്റമർ കെയറല്ലേ ഞാനീ കഴിഞ്ഞയാഴ്ച ഒരു പോളോൻ്റെ ബാഗ് വാങ്ങിയിരുന്നു അതെ അതെ ഷോറൂമില്നിന്നു തന്നെയാണ് വാങ്ങിയത് ലുലു മാളിലെ പോളോൻ്റെ ഷോറൂമില്നിന്ന്

പക്ഷേ അതു ഞാൻ കൊണ്ടുവന്ന് ഒരു രണ്ടു ദിവസത്തിനുള്ളില്ത്തന്നെ അതിന്റെ സിപ്പ് കേടുവന്നു ആ ഞാന് കാര്യമായിട്ട് അതില് ഓവർലോഡൊന്നും ചെയ്തിട്ടില്ല

അതിപ്പോള് സിപ്പ് അടയ്ക്കാനും തുറക്കാനും പറ്റാത്ത രീതിയിലാണ് കുടുങ്ങിക്കിടക്കുകയല്ല പക്ഷേ അത് സിപ്പടയുന്നില്ല ആ സിപ്പിൻ്റെ അതിങ്ങനെ നീങ്ങുന്നുണ്ട് എന്നല്ലാതെ പെട്ടി അടയുന്നില്ല അതെ എനിക്കു മാറ്റിത്തരും അല്ലേ ആ മാത്രമല്ല അതിൻ്റെ ക്ലോത്തൊക്കെ പെട്ടെന്ന് പഴകിയ പോലെ അതിൻ്റെ പോളീഷ് പോയിട്ടുണ്ട് ശരി അത് പ്രോഡക്റ്റ് പോളോ ട്രാവൽ മേറ്റ് ഓക്കെ താങ്ക്സ്